ഞാൻ ഈ വട്ടം ഒരു ഹെഡ്ഫോണ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു ഞാൻ പലവട്ടവും ഓർഡർ ചെയ്തിട്ടും എനിക്ക് നല്ല സാധനങ്ങൾ ഒന്നും കിട്ടീട്ടുണ്ടായിരുന്നില്ല ഈ വട്ടവു ഈ വട്ടം അത്യാവിശ്യം കുഴപ്പമില്ല എന്നാലും നല്ല സൗണ്ടുമുണ്ട് നല്ല ക്ലാരിറ്റിയാണ് നല്ലൊരു വർക്കിംഗ് ഉള്ളൊരു സാധനാണ് ഞാൻ ആഗ്രഹിച്ച പോലൊരു സാധനം തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു ചാർജും നിൽക്കുന്നുണ്ട് ബാക്കി ഞാൻ കുറേയെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഇത്രയൊരു നാലൊരു സാധനം അല്ല നാലൊരു കമ്പനിയും ബ്രാൻഡ് കമ്പനിയുമാണ് അതുകൊണ്ട് തന്നേ എനിക്ക് ഇഷ്ടായത്